സ്കൂളുകളുടെ കാര്യം പറയുമ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു എന്നു വെച്ചു കഴിഞ്ഞാൽ ബാത് റൂം ഫെസിലിറ്റീസ് ആയാലും പിന്നീട് കുടിവെള്ള സൗകര്യങ്ങളായാലും മേശയുടെയും കസേരയുടെയും അവസ്ഥ ഒക്കെ ഭയങ്കര പരിതാപകരമായിരുന്നു പക്ഷെ അതിൽനിന്നൊക്കെ ഒത്തിരി മാറി മാറി വന്നിപ്പം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നതോടെ സ്ക്കൂളുകൾ തന്നെ സ്മാർട്ട് ആയിട്ട് മാറിയിരിക്കുകയാണിപ്പം എന്താണ് ഇപ്പം നല്ല നല്ല ക്ലാസ് റൂമുകളും കുടിവെള്ള സൗകര്യങ്ങൾ പുസ്തകങ്ങൾ മേശകൾ കസേരകൾ പിന്നീടവർക്ക് ഉച്ചഭക്ഷണ പരിപാടികൾ എല്ലാം ഏർപ്പാടാക്കിയിട്ടിപ്പം എയ്ഡഡ് സ്കൂളുടെ കാര്യമായാലും അൺ എയ്ഡഡ് സ്കൂളിൻ്റെ കാര്യമായാലും ഇപ്പം നിലവാരം ഇല്ലാത്ത സ്കൂളുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല അവർക്കു മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട സേവനങ്ങൾ സൗകര്യങ്ങൾ പിന്നെ പിന്നെ എന്താണ് ബാത് റൂം ഫെസിലിറ്റീസെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്താ ക്ലീനിങ് ക്ലീനിങ് സ്റ്റാഫിനെ ആയാലും എല്ലാവരുമുണ്ട് ഇപ്പോൾ ദിവസവും തന്നെ അവർക്കു രാവിലെയും വൈകിയിട്ടും ക്ലീൻ ചെയ്തിടുന്നു പിന്നീടവർക്ക് കുടിവെള്ളങ്ങൾ നല്ല തിളപ്പിച്ചാറിച്ച വെള്ളങ്ങൾ ഫിൽറ്റർ ചെയ്ത വെള്ളങ്ങൾ

സ്ക ളുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ എന്താണ് മെച്ചപ്പെടുത്തേണ്ട കാര്യമെന്നു പറയുന്നത് ഈ ഗതാഗത സൗകര്യത്തിൻ്റെ കാര്യം പിന്നീട് വൈദ്യുതി വൈദ്യുതിയെന്നു പറയുന്നത് ഇപ്പം എല്ലാ സ്കൂളുകളിലും ഫാനിൻ്റെ ഫാനും ലൈറ്റ്സും ഒക്കെ ഉണ്ട് പക്ഷെ അത് കുറച്ചും കൂടി കുറച്ചും കൂടി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതാണെന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്